നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ കുറച്ച് ദുശീലങ്ങൾ കൊണ്ട് കുറച്ച് അംഗവൈകല്യം വരുന്നവരുണ്ട് അല്ലാതെ ജനറ്റിക് ഡിസീസ് ബാധിച്ചു അങ്ങനെ ഉണ്ടാക്കുന്ന കുറച്ച് ഇത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് ചില കുട്ടികൾ കണ്ണു കാണാൻ പറ്റില്ല ചില കുട്ടികൾക്ക് കേൾക്കാൻ പറ്റില്ല ചില കുട്ടികൾ വികലാംഗർ ആയിരിക്കും അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ആയിരിക്കാം വരുന്ന കുട്ടികൾക്ക് നമ്മൾക്ക് ഒരു സഹായം വേണം എന്നു പറഞ്ഞാൽ നമ്മള് കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഓൾറെഡി കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ജീവിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് നമ്മളാൽ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയണം പറയുകയും സഹായിക്കുകയും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടിക്ക് നമ്മൾ അങ്ങനെയും വേറെ ഒരു രീതി ആക്ഷൻ സോങ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം നമുക്ക് നമുക്ക് ഹെൽപ്പിങ് മെൻ്റാലിറ്റി വേണം കേൾക്കാൻപറ്റാത്ത കുട്ടികൾക്ക് നമ്മുടെ നമ്മൾ ഇപ്പം നമ്മൾ അവരെ സമൂഹത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യന്നതെങ്കിൽ അവർക്ക് ഒരു വിഷമമായിരിക്കും നമ്മൾ പക്ഷെ അവരെ ചേർത്തു പിടിച്ച് അവർ നമ്മളിൽ ഒരാളായി കണ്ടു അവർക്ക് എന്താണോ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് നമ്മൾ വേറെ ഒരു രീതിയിലൂടെ മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി കാരണം അവർക്ക് ഈ ലോകത്ത് കുറേ അനുഭവിക്കണം എന്നാൽ പക്ഷെ അതിൽ ഒരു കുറച്ച് എന്തെങ്കിലും ഒരു തെറ്റായിരിക്കും ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അതിന് അവർ ജീവിതകാലം മുഴുവനാണ് അനുഭവിക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ കുറച്ച് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തു ആണെങ്കിൽ അവർക്ക് ഒരു വളരെ സന്തോഷമായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾകൊക്കെ കണ്ണ് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് നമ്മൾ അവരുടെ മനസ്സിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കൊടുക്കുക നമ്മള് ചിലപ്പം മടുക്കുവായിരിക്കും ദേഷ്യം വരുവായിരിക്കും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യും എന്തായാലും അവോയ്ഡ് ചെയ്യും നമുക്ക് ആകെ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ മാക്സിമം അവരെ ചേർത്തു നിർത്താൻ നോക്കണം നമ്മൾ അവരെ ചേർത്തും നിർത്തും തോറും നമ്മൾ ഈശോകളെ നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ഈശോയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത് ഈശോ മറ്റൊരാളുടെ രൂപത്തിലാണ് ഈശോ ആണെന്ന് കരുതി നമ്മ ൾ എല്ലാം അവർക്ക് ചെയ്തു കണ്ണാടി കണ്ണ് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ അവരെ മനസ്സിൽ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ ഇപ്പം വികലാംഗരായ കുട്ടികൾക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ സ്റ്റെപ് കുറച്ച് സ്ലോപ്പ് ആക്കും സ്റ്റെപ്പ് മാറ്റി സ്ലോപ്പാക്കാൻ അവരെ വീൽചെയറിൽ തള്ളി കൊണ്ട് പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് വച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ശ്രമിക്കണം നമ്മൾ ഒന്നും ചെയ്യാതെ പോകരുത് ഇപ്പം കുറേ കുട്ടിയുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് അനാഥാലയങ്ങൾ എത്ര ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കുറേ അനാഥാലയങ്ങളുണ്ട് ഇപ്പം കുട്ടികളെ എറിഞ്ഞു കൊല്ലുക കുട്ടികളെ കൊച്ചിലെ തന്നെ അവർ കളയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം ഉൾപ്പെടാതെ ഇരിക്കുകയും ഇങ്ങനെ ഉൾപ്പെടുന്നവരെ നമ്മൾ മാക്സിമം കുറച്ചൊക്കെ ഒന്നു പറഞ്ഞു ശരിയാക്കണം നമ്മൾ നമ്മുടെ സമൂഹമാണ് നാളെ നമുക്ക് ഒരു സമൂഹം വേണം അപ്പോൾ ആ അതൊരു നല്ല സമൂഹം ആവണം എങ്കിൽ നമ്മൾ അതിനെയൊക്കെ പ്രയത്നിക്കണം നമ്മളെ പോലെ ഒരു മനുഷ്യർ തന്നെയാണ് അവരും അപ്പഴ് അവർക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ എല്ലാ കാര്യങ്ങളോടും അവരുടെ കൂടെ അവർക്ക് ഒരു ചിന്ത തോന്നരുത് അവരുടെ കൂടെ ആരും ഇല്ല അവർ അവരുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ല അവരെ സപ്പോർട്ട് ചെയ്യാാൻ ആരുമില്ല എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാകരുത് അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നമ്മൾ നിൽക്കുക